ആ ചേട്ടാ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒന്നാമത് ഞാൻ ഈ പുതിയ നാട്റ്റിൽ നിന്ന് മാറിയങ്ങനെ നിന്നിട്ടും ഇല്ല എങ്ങനെയൊക്കെയായിരിക്കും ആൾക്കാരുമെന്നൊക്കെയുള്ള ഒരു പേടിയായിരുന്നു ഈ പുതിയ സ്ഥലത്തോട്ടു വന്നപ്പോൾ അതുകൊണ്ട് ടാക്സി വിളിക്കണോ എങ്ങനെ പോകണം അതോ ട്രെയിൻ വിളിക്കണോ യൂബർ വിളിക്കണേ അത് എല്ലാ ഡൗട്ടായിരുന്നു ഒരു തരത്തിൽ എന്തുമായാലും പിന്നെ ലാസ്റ്റിൽ വിചാരിച്ചു യൂബർ തന്നെ വിളിക്കാൻ എന്തുമായാലും ക വന്ന പുള്ളി അസു താങ്കളായതു കൊണ്ടേറ്റവും നന്ദി എല്ലാം നല്ല രീതി എത്തിക്കേണ്ടിടത്ത് നല്ല രീതി സേഫായിട്ടെത്തിക്കുകയും ചെയ്തു എല്ലാം കൊണ്ടും വളരെ നന്ദി മലയാളികളെ കിട്ടാൻ പാടായീ സ്ഥലത്തെന്തുമായാലും ചേട്ടൻറ്റോട്ടുള്ള നല്ലൊരു മലയാളി മനുഷ്യൻ കണ്ടതും മുട്ടിയതും എല്ലാത്തിലും എന്തുവായാലും നന്ദി എന്തായാലൊത്തിരി സന്തോഷമായി ഇവിടെ വന്നീ സ്ഥലത്തെ പറ്റിയെല്ലാം നല്ലായിട്ട് വിവരിച്ച് നല്ല രീതി മനസ്സിലാക്കി തന്നിത്രയും ഒന്നൊന്നര മണിക്കൂർ എൻ്റെ കഥകളും കാര്യങ്ങളും തമാശകളും അതും ഇതുമെല്ലാം വെറുപ്പീരുമെല്ലാം പറച്ചിൽ അതും ഇതുമെല്ലാം പൊട്ടത്തരങ്ങളെല്ലാം കേട്ടിരുന്ന് ഇത്രയും നേരം സ സഹിച്ചേന് നന്ദിയുണ്ട് കേട്ടോ എന്തോരൊരു തരത്തിൽ ആ ഇനി നാട്ടിൽ വരുന്ന സമയത്ത് ആ അവിടെ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂറല്ലേ ഉള്ളൂ ഞങ്ങളുടെ സ്ഥലത്തോട്ട് ഇടക്കൊക്കെ ഇറങ്ങ് കുടുംബത്തോടെല്ലാവരും മക്കളും ആ മക്കൾ പഠിക്കുന്ന ഞങ്ങളടുത്ത് കോളേജ് ഹോസ്റ്റലിലല്ലേ നിൽക്കുന്നേ അവരോടും ഇടക്കങ്ങോട്ടൊക്കിറങ്ങാൻ വാ എന്തെലാവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി അതൊക്കെ ശരിയാക്കി തരാം പിന്നെ നാട്ടിൽ ഇടക്ക് വരുമ്പോൾ കാണാം ഫോൺ നമ്പറുണ്ടല്ലപ്പോൾ ഇടക്ക് കോൺടാക്റ്റ് ചെയ്യൊക്കെ ചെയ്യാം എന്തുമായാലും ഒരുപാട് നന്ദി കേട്ടോ വേറാരാന്നാന്നെങ്കിലിതിൻ്റെ ഇരട്ടി പൈസ മേടിക്കും ചെയ്യത്തുള്ളായിരുന്നിത് ചേട്ടനായതു കൊണ്ടിത്രയും കുറച്ച് പൈസ മേടിച്ചത് എന്തുമായാലും കാര്യമായി ഇല്ലെങ്കിൽ നാട്ടിൽ വന്നിവിടെ അറിയാത്ത മനുഷ്യരുടേൽ പെട്ട് പോയേനെ ഓരോരുത്തരൊക്കെ പറ്റിച്ച് ഇരട്ടി പൈസയും മേടിച്ച് ഒന്നും അറിയാത്തതു കൊണ്ട് പറ്റിക്കാനെളുപ്പമാണ് അതു കൊണ്ടങ്ങനെയൊക്കെ പറ്റിച്ച് ഒരൂപ്പാട് വന്നേനെ എന്തുവായാലും ഉപകാരമായി ശരിയേട്ടെന്നാൽ നടക്കട്ടെ അടുത്ത ഓട്ടുള്ളല്ലേ ശരി എന്നാൽ പിന്നെ നാട്ടിൽ വരുമ്പോഴൊക്കെ കാണാം അല്ല എവിടെ വെച്ചായാലും ഇടക്കൊക്കെ കാണാം ശരി എന്നാൽ ഇടക്ക് വിളിക്കാമേ